ഹായ് ചേച്ചി കുറേ ആയല്ലോ കണ്ടിട്ട് ആ ഇപ്പോൾ തടി ആ ഇപ്പോൾ കടയിലൊന്നും അങ്ങനെ കാണാറില്ല അതാണ് ചോദിച്ചത് എവിടെയായിരുന്നു ഓഹോ എന്താ വീട്ടിലൊക്കെ എന്താ സുഖമല്ലേ ആ ആ പച്ചക്കറിയൊക്കെ അങ്ങനെ വാങ്ങാനൊന്നും ഇവിടെ വരല് കാണണില്ല പൊതുവെ കുറവാണ് ഭയങ്കര ബിസ്സിയായിരിക്കുമല്ലേ

ഞങ്ങൾ ഇത് ഞങ്ങൾ വിചാരിച്ചു ഇനി വേറെവല്ല കടയിലേക്കെങ്ങാനും പോയോയെന്ന് ഓ അത് നല്ലൊരു കോംപ്ലിമെന്റായിട്ട് എടുക്കുന്നു ആ എന്തൊക്കെ സാധനങ്ങളാണ് ഓ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എപ്പോഴും എപ്പോഴും വരുന്ന കാരണമാണ് ഞങ്ങൾ ഇടക്കിടയ്ക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തരുന്നത് ആ ഒക്കെ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് അത് സ്പെഷ്യലായിട്ടൊന്നും വേണ്ടേ ആ ഇപ്പോൾ ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞതല്ലേ അപ്പോൾ കുറേ പച്ചക്കറികൾ നല്ല ഫ്രഷായ കുറേ പച്ചകറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനി നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫുഡൊക്കെ എങ്ങനെയാണ് പ്രിഫെർ ചെയ്യണം അതായത് മോഡേൺ അതായത് കുറച്ച് ബർഗറ് പിസ്സ അങ്ങനെയൊക്കെ ആണോ അങ്ങനത്തെ പേക്കും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് ആ ഓ ഓക്കേ ആ ആ ആ ഓക്കെ നല്ല ഫ്രഷായ പച്ചക്കറികളാണ് ഇന്ന് രാവിലെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ റെഗുലർ കസ്റ്റമറായ കാരണം നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള സർവ്വീസും അതുപോലെതന്നെ നല്ല ക്വാളിറ്റി ഉള്ള പച്ചക്കറികളും എല്ലാം നിങ്ങൾക്ക് തരുന്നതാണ് പ്രോവൈഡ് ചെയ്യും

നിങ്ങൾ ഈ ഈ ഈ ഈ കടയിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഫാമിലിനോടും ഫ്രണ്ട്സിനോടും എല്ലാം റെക്കമെന്റ് ചെയ്യണം വരാൻ പറയണം ആ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടുത്തെ സർവ്വീസിനെ പറ്റിയിട്ടൊക്കെ എന്താ അഭിപ്രായം

ആ ഓക്കെ ഇവിടുത്തെ ആ ഓക്കെ ഇവിടുത്തെ സെയിൽസ് പേർസണിൻ്റെയൊക്കെ ബിഹേവിയർ ഒക്കെ എങ്ങനെയാണ് അവർ അത് എന്തെങ്കിലും ഇത് ഇമ്പ്രൂവ്മെന്റ് കാണിക്കണം എന്നുണ്ടോ ആ ഒക്കെ ആ ഓക്കേ ആ ആ ഓക്കെ ഓക്കേ താങ്ക് യൂ ആ